ഇപ്പോൾ നമ്മുടെ ക്യാൻസറിനും ഹൃദയരോഗത്തിനും ഇഷ്ടംപോലെ പുതിയ പുതിയ ആധുനികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവ അവൈലബിൾ ആണ് അതിപ്പോൾ നമ്മുടെ ഈ രാജ്യത്താണെങ്കിലും ശരി നമ്മുടെ സംസ്ഥാനത്ത് ആണെങ്കിലും ശരി നല്ല നല്ല പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് അത് വളരെ നമുക്ക് ഒരു അതിൽ നിന്ന് ആ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് നല്ലപോലെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു ട്രീറ്റ്മെന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് കാരണം പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ വന്ന് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പോയി എന്ന് ഓർത്തിട്ടുള്ളവരാണ് നമ്മൾ പലരും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പോയവരാണ് പലരും കാരണം ഇ പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ക്യാൻസർ വന്ന് കഴിഞ്ഞാൽ അവന് അതിന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഇഷ്ടംപോലെ മാർഗങ്ങൾ പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റും ഈ നമ്മുടെ ഈ ഇവിടെ ലഭ്യകരമാണ് കാരണം നമ്മുടെ ആശുപത്രികളിലും എല്ലാം ലഭ്യമാണ് പുതിയ ട്രീറ്റ്മെന്റ്സ് ആണ് എല്ലാം ഹൃദയ രോഗങ്ങൾക്ക് ആണെങ്കിലും ക്യാൻസറിന് ആണെങ്കിലും പല പല അല്ലെങ്കിൽ നിലവിൽ ഒരു അറ്റാക്ക് വന്നു ഒരു അറ്റാക്ക് വന്ന ഒരാളാണെങ്കിൽ പിന്നെ അവന് പണിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതി ആയിരുന്നു പണ്ടൊക്കെ അവന് ഒരു അറ്റാക്ക് വന്നാൽ പിന്നെ അവൻ ഇരി ഇരുന്ന് പോവുന്ന രീതിയായിരുന്ന് പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ചാണ് ഒരു അറ്റാക്ക് വന്നവന് കുറച്ച് നാൾ പുതിയ ട്രീറ്റ്മെന്റിന്റെ ഇത് കൊണ്ട് കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവന് ജോലിക്ക് പോവാം അങ്ങനെ അവന് സാദാ നടക്കുന്നത് പോലെ നടക്കുകയും എല്ലാം ചെയ്യാം പക്ഷേ അതിന് യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ അന്ന് വളർന്നിട്ടില്ല നമ്മുടെ മനുഷ്യനും മനുഷ്യൻ അന്ന് വളർന്നിട്ടില്ല മനുഷ്യ മനുഷ്യൻ്റെ അറിവും അന്ന് വളർന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യനും വളർന്ന് അതിനേക്കാൾ ഉപരി അവൻ്റെ അറിവും അതിൻ്റെ നൂറ് ഇരട്ടി വളർന്നു അപ്പം അതിന്റേതായ പുതിയ ടെക്നിക്കും കാര്യങ്ങളും എല്ലാം മെഡിക്കൽ ഫീൽഡിൽ വന്നിട്ടുണ്ട് അത് വളരെ പ്രയോജനപ പ്രദമാണ് ക്യാൻസർ ഈ ഹൃദയരോഗം പോലെയുള്ള ഈ മഹാരോഗങ്ങൾക്ക് വളരെ പ്രയോജന പ്രദമായിട്ടുള്ള ഒരു ഇതാണ് അത്